ആ പറഞ്ഞോളൂ കേൾക്കാം പറഞ്ഞോളൂ ആ അതേലോ അതേലോ

ആണല്ലേ ആ ആ നയൻ വൺ സിക്സാണോ അതോ പഴയ മോഡല് സ്വർണമാണോ ആണല്ലേ ആ ആ ആ ഉണ്ട് അപ്പോൾ നമുക്ക് കുഴപ്പമില്ല ഏത് പുതിയ മോഡലാണോ വേണ്ടത് പുതിയ മോഡല് ഇപ്പം പണ്ടത്തെ നമ്മുടെ കിലുക്കൊക്കെ ഉള്ള സൈസ് കൊലുസായിരിക്കും പക്ഷേ ഇപ്പം എല്ലാം ഈ സ്റ്റോൺ വർക്ക് അങ്ങനത്തെയൊക്കെയാണ് അപ്പോൾ കല്ലൊക്കെ നമ്മൾ സൂക്ഷിച്ച്

ആ ഒരുപാട് മോഡലുണ്ട് നമുക്ക് സ്റ്റോൺ വർക്കില്ലാത്ത സൈസുണ്ട് ഈ മറ്റേ എന്നാണ് പറയണത് സത്തറകന്യോ അങ്ങനെ കുറേ സച്ചിൻറ്റെം അങ്ങനെ കുറേ ഉണ്ട് അതിൽ ഏത് മോഡൽ വേണേലും പറഞ്ഞാൽ മതി പണിയിച്ച് തരണമെങ്കിൽ പണിയിച്ച് തരാം അല്ലെങ്കിൽ ഇവിടെയുള്ള മോഡലാ ഇഷ്ട്ടമെങ്കിൽ അത് പറഞ്ഞാൽ മതി ബൂ പറ ബുക്ക് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ അത് കൊണ്ട് എത്തിച്ച് തന്നേക്കാം ആ ഇപ്പം ഒരു പവന് നമുക്ക് സിക്സ്റ്റി തൗസണ്ട് സിക്സ്റ്റി ഫൈ തൗസണ്ട് ബേസിലുണ്ട് അപ്പോൾ നമ്മൾ പണിക്കൂലി എല്ലാം കൂടെ കഴിഞ്ഞ് വരുമ്പം സെവൻറ്റി തൗസണ്ട് ആകുമേ ആ ആ ആ ആ പഴയ ഒത്തിരി അപ്പം നയൻ വൺ സിക്സൊന്നും അല്ലാത്ത സ്വർണത്തിന് നമുക്ക് കുറച്ച് വ്യത്യാസം വരും നയൻ വൺ സിക്സ് ആണെങ്കിൽ പോലും പഴയ സ്വർണമല്ലേ അപ്പം നമ്മൾ കുറച്ച് ആ മൂടികൊട പൊട്ടി പോയതൊക്കെ നമ്മൾ ഉരുക്കി വരുമ്പം കുറച്ച് വ്യത്യാസം വരുമേ പുതിയത് മേടിക്കുമ്പം നമുക്ക് പണിക്കൂലിയൂടെ എക്സ്ട്രാ ആവുട്ടോ പഴയ സ്വർണത്തിൻ്റെ ഒപ്പം തന്നെ ഇപ്പം ഒരു പവനാണെങ്കിൽ ഒരു പവൻ മേടിക്കും പിന്നെ പണിക്കൂലി എക്സ്ട്രാ ആവുട്ടോ ആ അതുകൊണ്ട് ഓഫറുണ്ടേ അക്ഷയ ത്രിതീയ ആയതു കൊണ്ട് ഒരു ആഴ്ചത്തെ ഓഫറുണ്ടേ അപ്പോൾ നമുക്ക് ഒത്തിരി പണിക്കൂലി കുറവുണ്ട് അപ്പോൾ പണിക്കൂലി ഉള്ള എടുത്താലും ഒരുപാട് പണിക്കൂലി കുറവ് വരൂട്ടോ ആ അതിപ്പോൾ ഇപ്പോൾ തരുവാണെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ വിലയിൽ കൂടുതലാണെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ വില തരും ഏ അല്ലെങ്കിൽ അക്ഷയ തൃതീയ അനുബന്ധിച്ച് ഒത്തിരി ഓഫറുണ്ട് അപ്പോൾ അതും കൂടെ കുറെ നമുക്ക് മാക്സിമം വില കുറച്ച് തരുവോളു ഇപ്പോൾ എന്ന ബുക്ക് ചെയ്തോളാലോ ബുക്ക് ചെയ്യുവാണെങ്കിൽ മാക്സിമം വില കുറച്ച് അപ്പോഴത്തെ വില എന്താന്നോ അത് വെച്ച് തരാം അക്ഷയ തൃതീയയുടെ ഓഫറും കൂടെ കൂട്ടി അപ്പോൾ ഞാൻ കുറേ

ആ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഉണ്ട് നമുക്ക് എത്രക്ക് അപ്പോൾ ഒന്ന് അര പവൻ വേണമെങ്കിൽ ഇപ്പം ഒരു പവൻ്റെ പൈസ ഉള്ളെങ്കിൽ ബാക്കി നമുക്ക് ആ ഒരു ഇൻസ്റ്റാൾമെൻറ്റായിട്ട് തന്നാൽ മതി കുഴപ്പമൊന്നുമില്ല പിന്നെ ആധാർ കാർഡ് പിന്നെ കുറച്ച് ഡോക്കുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്താൽ മതി ബാക്കി ഞാൻ ചെയ്ത് തന്നോളം ഇപ്പം തന്നെ ഇപ്പോൾ അഹ് ഫൈ തൗസണ്ട് മുതലുണ്ട് ഓരോ മാസം അടക്കുന്നതിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനടക്കാം തൗ ഫൈ തൗസൻഡാണ് ഏറ്റവും കുറവ് ഓരോ മന്ത് അപ്പോൾ ഫൈ തൗസൻഡ് ടെൻ തൗസൻഡ് ഫിഫ്റ്റി തൗസൻഡ് അങ്ങനെ എക്സ്ട്രാ എക്സട്രാ ഏത് വേണേലും ആകാമേ അപ്പം ഞാൻ കുറേ മോഡലുകളിട്ട് തരാമേ അതിലേതാണ് വെച്ചാൽ ബുക്ക് ചെയ്തോളാമോ ആ വാട്സാപ്പ് നമ്പര് ഇപ്പം ഈ വിളിക്കുന്ന നമ്പറല്ല ഞാൻ ഇട്ട് തന്നേക്കാം അന്നേരം ബുക്ക് ചെയ്ത് ആ പറഞ്ഞാൽ മതി അപ്പോൾ ഞാൻ ബുക്ക് ചെയ്തേക്കാട്ടോ

ആ ഓക്കെ ഓക്കെ മറ്റേതുപോലെ ചെയ്ത് തന്നോളാട്ടോ ഓക്കെ ഓക്കെ ശരി അ ഓ ഓക്കേ ഓക്കേ